ഞങ്ങളുടെ സ്ഥലത്തെ ചരിത്ര പ്രധാനമായ ഒരു സംഭവമാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധമായ വിഷയം തമിഴ്നാടിന് മുല്ലപ്പെരിയാർ ഡാം വിട്ട് കൊടുക്കണമെന്നുള്ള പ്രശ്നമായി ഒരുപാട് തമിഴ്നാടിനെയും കേരളവുമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് തമിഴ്നാടും കേരളത്തിന്റേയും അതിർത്തികളിൽ താമസിക്കുന്ന ഞങ്ങളെയത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിടയാക്കിയിട്ടുണ്ട് മലയാളികളും തമിഴ്കാരും തമ്മിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അടികൾ ബഹളങ്ങൾ മലയാളികൾ കേരള തമിഴ്നാട്ടിൽ ചെല്ലുവാൻ പാടില്ല അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അതിനെയെല്ലാം എതിർത്ത് ദിവസങ്ങളോളം മാസങ്ങളോളം സമരം ചെയ്ത് മുന്നേറുകയാണ് ഞങ്ങടെ ആളുകൾ ചെയ്തത് ഇപ്പഴും സമരം ചെയ്യുന്ന ആൾക്കാരെ ഇപ്പഴും ആ പെരിയാർ തീരങ്ങളിലെ സമര പന്തലുകളിൽ കാണാൻ സാധിക്കും